എൻ്റെ വീട്ടിൽ അങ്ങനെ പൂന്തോട്ടം ആയിട്ടൊന്നുമില്ല അവിടെ ഇവിടെ ഒക്കെ ചെടികളൊക്കെ ഒണ്ട് എന്നാലും ചെമ്പരത്തി റോസ അതൊക്കെ അമ്മ നട്ടേക്കുന്നതാണ് കേട്ടോ ഞാൻ അതിൽ കയ്യിടാറില്ല കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് ജമന്തിയുടെ വിത്ത് പാകിയിട്ടുണ്ട് അത് ചെറുതായി ഇപ്പോൾ കുറച്ചും കൂടെ വലുതായിട്ടുണ്ട് അതിലാണെങ്കിലും ഇങ്ങനെ കുറച്ചൊക്കെ ചീയാൻ തുടങ്ങിയിട്ടുണ്ട് അല്ല ചീയാനല്ല ഇങ്ങനെ വാടിയൊക്കെ പോയിട്ടുണ്ട് പക്ഷേ എന്നാലും ഞാൻ അത് കൈകാര്യം ചെയ്തു എല്ലാം നോക്കുന്നുണ്ട് വെള്ളം രാവിലെ ഒഴിക്കും ഉച്ചയ്ക്ക് ഒഴിക്കാൻ പറ്റുകേലല്ലോ നമ്മൾ ഞാൻ ആണെങ്കിൽ വൈകുന്നേരം ഒഴിക്കും വൈകുന്നേരം ഒരു ആറര ഒക്കെ ആവുമ്പോഴ് ഒഴിക്കും രാവിലെ ഞാൻ ഒരു ഏഴ് മണിയൊക്കെ ആവുമ്പോൾ ഒഴിക്കും എണീറ്റ് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴൊക്കെ കുറച്ച് വെള്ളം ഒഴ് ഒത്തിരി വെള്ളം കുത്തിയൊഴിക്കാൻ പറ്റത്തില്ലല്ലോ കാരണം അത് പോവത്തില്ലേ അപ്പം അതിന്റേതായ രീതിയിലിങ്ങനെ തളിച്ച് തളിച്ച് ഇങ്ങനെ കൊടുക്കും പിന്നെ കൊതുക് അങ്ങനെ ഒന്നുവില്ല പിന്നെ ചെറിയ ചെറിയ പാ പ്രാണികളൊക്കെ വരും അതിനെ അങ്ങ് തട്ടി അങ്ങ് വിടും ആ അത്രേയുള്ളൂ